നമ്മുടെ ഇവിടത്തെ പ്രധാന കലകൾ കലകളെന്ന് പറയുന്നത് ഇപ്പം ഫെസ്റ്റിവില്ല് കാര്യങ്ങളെക്കെയാണ് ഒരു ഉദാഹരണം ഉത്സവം കാര്യങ്ങൾ പള്ളിപ്പെരുന്നാൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉത്സവം എന്നെക്കെ പറയുമ്പം അത്യാവശ്യം നല്ല വലിയ ഉത്സവങ്ങളാണ് ഇപ്പം കുറേ ആൾക്കാർ നാട്ടുകാർ ആൾക്കാരൊക്കെ കുറേ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ അറിഞ്ഞ അറിഞ്ഞു വരുന്നു വര്ഷത്തിൽ ഒരിക്കലായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു ഉല്സവം വലിയ ഒരു ഉത്സവം എന്നൊക്കെ പറയുന്നുണ്ടാവും അപ്പം പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കർ ഇങ്ങനെ വരും അങ്ങനെ ഉള്ള കുറേ ഇതുണ്ട് പിന്നേ എന്നു പറയുമ്പം കുറെ ഇവിടെ എന്നു പറയുമ്പം കുറേ സ്ഥലങ്ങൾ ഉണ്ട് അത്യാവശ്യം ഫേമസ് ആയ കുറേ സ്ഥലങ്ങൾ ഷൂട്ടിങ്ങിലും പിന്നെ ഓരോ ഓരോ ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് ഓരോത്തർ ഇങ്ങനെ നല്ല രീതിക്ക് ഫേമസ് ആക്കി കുറേ സ്ഥലങ്ങൾ ഉണ്ട് പിന്നെ അങ്ങനെ ഇപ്പം ഈ പലതരത്തിലുള്ള മ്യൂസിയങ്ങൾ മ്യൂസിയങ്ങൾ എന്നൊക്കെ പറയുമ്പം ഇവിടെ അത്യാവശ്യം ഉണ്ട് ഇപ്പം പല പഴയ സാധനങ്ങളും പുരാ വസ്തുക്കളായ സാധനങ്ങൾ ഓരോ ഓരോ ഇപ്പം ടിപ്പു സുല്ത്താന്റെ ഇത് പിന്നെ ബ്രിട്ടീഷുകാരുടെ ഓരോ യുദ്ധം നടന്ന സ്ഥലങ്ങൾ അങ്ങനെ ഓരോ സ്ഥലങ്ങൾ ഇപ്പം അവർ കെട്ടി അതിന് വലിയ ഒരു നല്ല ഒരു സ്ഥലമാക്കി എടുത്ത് അത് ഒരു പാർക്ക് പോലെ ആക്കി എടുത്ത് ഇപ്പം സൂക്ഷിച്ചു നടത്തിക്കുന്ന അങ്ങനെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്നൊക്കെ പറയുമ്പം ചിലപ്പം സിനിമ ഷൂട്ടിങ്ങ് ഉണ്ടാവും ഷോർട്ട് ഫിലിമ് അങ്ങനെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ വണ്ണു അതൊക്കെ ഇപ്പം പുറത്തു ഉള്ളവരൊക്കെ അങ്ങനെ അറിഞ്ഞു വരും പിന്നെ കൂടുതലും ഇവിടെ എന്നു പറയുമ്പോൾ ഫെസ്റ്റിവൽസ് കലാപരിപാടികൾ പലതരത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് സിനിമകളിൽ അറിയപ്പെട്ട കുറച്ചു കുറച്ചു സ്ഥലങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് പ്രത്യേകിച്ചു ഞാൻ എടുത്ത് പറയാനായിട്ട് മെയിനായിട്ട് ഒന്നുമില്ല എന്നാലും വന്നിരിക്കുന്നതിൽ വച്ചിട്ട് അത്യാവശ്യം ഇതായിട്ടുള്ളത് പഴശ്ശി രാജാവിൻ്റെ യുദ്ധം നടന്ന സ്ഥലം അങ്ങനെ ഓരോ ഓരോ സ്ഥലങ്ങൾ ഈ നാട്ടിൽ ഉണ്ട് അതൊക്കെ അത്യാവശ്യം മെയിനായിട്ട് ഇപ്പം എല്ലായിടവും എല്ലാവരും തന്നെ അറിഞ്ഞു വരാൻ തുടങ്ങി ആൾക്കാർ ഇപ്പം അറിഞ്ഞു ചോദിച്ചു നമ്മുടെ നാട്ടിൽ വന്നിട്ട് ചോദിക്കും ഇന്ന സ്ഥലം എവിടെയണെന്നൊക്കെ അപ്പം നമുക്ക് ഒരു ഹാപ്പി ഉണ്ടാവുമല്ലോ അതേപോലെ ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ ഉണ്ട് ഇവിടെ